ഇപ്പോൾ നമ്മുടെ നാടുകളിലെന്നു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കുറ്റങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ മെച്ചപ്പെട്ട ഒരു സംവിധാനം സമൂഹത്തിൽ കൊണ്ടുവരണം സമാധാനം ഉണ്ടാവണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പരമാവധി ശിക്ഷ കിട്ടുന്നില്ല ശിക്ഷ കിട്ടുകയാണെങ്കിൽ തന്നെ അതിൽ അവർ എന്താ പറയുക പല ബന്ധങ്ങളും വച്ച് അവര് പുറത്തിറങ്ങുകയാണ് പിന്നെ ജയിലില് അവരെ നാല് നേരവും നല്ല രീതിയിൽ തീറ്റിപ്പോറ്റുക എന്നുള്ള പ്രശ്നങ്ങൾ ആണ് അപ്പോൾ നമ്മൾ ഇതിൽ എന്താ മുൻകരുതൽ എടുക്കേണ്ടത് എന്നു വച്ചു കഴിഞ്ഞാൽ നമ്മൾ നിയമം കുറെയൊക്കെ ജനങ്ങളുടെ കൈകളിലേക്ക് വരിക എന്നുള്ളതാണ് നിയമം കറക്ടിനു പോയില്ലെങ്കിൽ നമ്മൾ പൗരന്മാർ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം അവർക്ക് എത്ര ശിക്ഷ കിട്ടിയിട്ടും ഇതിങ്ങനെ തള്ളിപ്പോകുക ഇല്ലെങ്കിൽ നീണ്ടു നീണ്ടു പോകുക അത് കറക്ട് ആയൊരു ഒരു പ്രൊസീജർ നടുക്കുന്നില്ല നമ്മുടെ ക്രിമിനൽ കേസുകളിൽ പെട്ടന്ന് പെട്ടന്ന് നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളതുപോലെ പെട്ടെന്ന് തീരുമാനങ്ങൾ വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതാണ് നമ്മുടെ പിന്നെ കേരളത്തിലും കൊണ്ടു വരേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടു ഒരു കൊച്ചിനെ സ്വന്തം അച്ഛൻ വെട്ടിക്കൊന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കുറേയൊക്കെ നമ്മുടെ കൈകളിലാണ് നിയമത്തിൻ്റെ വീഴ്ചകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ അത് സൗദി നിയമങ്ങൾ പോലെ കൊണ്ടു വരികയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ് പൗരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ ഉള്ളതും ഈ ഒരു കാര്യം ആണ് നിയമങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ്ങ് ആകുക